ആയോധനകല മറ്റുള്ളവര് മറ്റുള്ളവര് കളിക്കുന്നതൊന്നും കണ്ടിട്ടൊന്നുമില്ല എന്നാലും ആയോധനകല എന്ന് പറഞ്ഞാൽ കളരിയാണ് കളരി കളിക്കുന്നതൊക്കെ നല്ലതാണ് പഠിക്കുന്നതൊക്കെ നല്ലതാണ് നമ്മുടെ നേരെ നേരെ ഒരാക്രമണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും നമ്മക്കറിയുന്നതാണെങ്കില് കളരിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവരെ പരാജയപ്പെടുത്താം സ്ത്രീകളൊക്കെയാണെങ്കിൽ അത് പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒറ്റയ്ക്കും എവിടെങ്കിലുവൊക്കെ പോകുമ്പോഴൊക്കെ പോകുമ്പോഴൊക്കെ ഇതൊക്കെ അഭ്യസിക്കുന്നവരാണെങ്കില് ഒന്നും പേടിക്കണ്ട നമുക്കെവിടുത്താണെങ്കിലും എത്ര ആൾക്കൂട്ടത്തിലേക്കാണെങ്കിലും ഏത് രാത്രിയാണെങ്കിലും നമുക്ക് ധൈര്യത്തോടുകൂടെ പുറത്തേക്കിറങ്ങാം നമ്മുടെ നേരെ ഒരാള് വന്നാൽ നമുക്കവരെ എതിർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് എതിർക്കാൻ പറ്റുമെന്നുള്ള പറ്റുന്നൊള്ളവർക്കാണെങ്കില് ഇതൊക്കെ നല്ലതാണ് പഠിക്കാൻ ഞാന് ഇനി ഈ കളരി പഠിപ്പിക്കുന്നതൊന്നും കണ്ടിട്ടൊന്നുമില്ല എന്നാലും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുണ്ടത്